ഇന്ത്യന് ഐഡിയല് സംഗീതം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അകത്തുള്ള കുമാറ് വിശാൽ അവരാണ് അതിന്റെ മെയിനായിട്ടുള്ള ഇത് ജഡ്ജസ് ഇപ്പം അതിനകത്ത് പരിപാടിയ്ക്ക് വരുന്ന ഇതി കൊച്ചാണെങ്കിലോ വലിയ ആളാണെങ്കിലും അവരുടെ പാട്ട് നോക്കിയിട്ട് അതിനകത്തുള്ള പ്രോബ്ലംസ് വരിയിലെ മിസ്റ്റേക്ക് അതിൻ്റെ ലിറി ലിറിക്സ് ഒക്കെയില്ലേ അതിൻ്റെ എന്തെങ്കിലൊക്കെ കുഴപ്പം ഉണ്ടെങ്കിൽ അത് അവർ പാടി കേൾപ്പിച്ചുകൊടുക്കും ഇന്നപോലെയാണ് അങ്ങനെയുള്ള ഒരോ ഇതുക്കെ പറഞ്ഞ് ഇതാക്കും ഈ ജഡ്ജസ് അവരുടെ പാട്ടും ഭയങ്കര ഇഷ്ടമാണെനിക്ക് അതിനകത്തെ പാടാന് വരുന്ന പിള്ളേരും ഈ വലിയവരൊക്കെയില്ലേ അവരുടെ പാട്ടെന്നൊക്കെ പറയുമ്പോൾ നല്ല ഈണമുള്ളതും അങ്ങനെയുള്ള പല എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പറഞ്ഞു സോല്വ് ആക്കി കൊടുക്കും അതൊക്കെ ഇങ്ങനെ കേട്ട് ഇരിക്കാനും അവരുടെ ഈണമുള്ള പാട്ടും അതില് വരുന്ന ഒരോരുത്തരുടെ പാട്ടുകളും അങ്ങനെ കുറെ കേസുകെട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കേട്ട് ഇരിക്കാന് ഭയങ്കര രസമാണ് പിന്നെ ജഡ്ജസിന്റെ രണ്ടുപേരുടെയും പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അവരുടെ പാട്ടൊന്നൊക്കെ പറയുമ്പം ഭയങ്കരമായിട്ട് നല്ല ഈണത്തിലും പാട്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസത്തിലവർ പാടി പോകുന്നത് അത് കേട്ടിരിക്കാന് തന്നെ ഭയങ്കരയിതാണ് നമ്മൾ അത് കേട്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് പാടാനുള്ളൊരിതും ഒക്കെ വരും നമുക്ക്